നമ്മുടെ വീട്ടിൽ മൃഗങ്ങളെ വളർത്തുന്നത് ഏറ്റവും നല്ലതാണ് അത് ഒത്തിരി അത് അതിനനുസരിച്ചും നമ്മൾ അതിനെ സംരക്ഷിക്കുകയും കൂടെ ചെയ്യണം മൃഗങ്ങളെ വളർത്തിയാൽ പശുവിനെയൊക്കെ വളർത്തിയാൽ നമുക്ക് വീട്ടാവശ്യത്തിന് പാൽ എടുക്കാനാണെങ്കിലും പിന്നെ പാൽ നമുക്ക് കൊടുക്കാനാണെങ്കിലും നല്ല രീതിയിൽ സാധിക്കും പിന്നെ പാൽ ആണെങ്കിലും നമുക്ക് വേറെ വെളിയിൽ നിന്ന് മേടിക്കാതെ നല്ല പാൽ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും വെളിയിൽ കൊടുത്താലും അതിനനുസരിച്ചുള്ള പൈസ മേടിക്കുകയും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ കോഴികളെ ആണെങ്കിലും ഇപ്പം താറാവിനെ ആണെങ്കിലും വളർത്തുന്നതനുസരിച്ച് അതിനെ നമുക്ക് കോഴിമുട്ടയ്ക്ക് ആണെങ്കിലും താറാ മുട്ടയ്ക്ക് ആണെങ്കിലും പ്രയോജനം ആവും വെളിയിൽ നിന്ന് മേടിക്കാതെ അവനവൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾ വീട്ടിൽ വളർത്തുവാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പ്രയോജനം ആവും പിന്നെ അത് നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് വെളിയിൽ കൊടുക്കുവാണെങ്കിലാണെങ്കിലും നമുക്ക് സാധിക്കും അങ്ങനെ മാംസത്തിനാണെങ്കിലും കോഴിയെ കോഴി കോഴി ക്ക് വേണമെങ്കിലും വെളിയിൽ നിന്ന് മേടിക്കാതെ നമ്മുടെ വീട്ടിൽ ആ വീട്ടിൽ വളർത്തുന്ന കോഴിയാണെങ്കിലും താറാവാണെങ്കിലും ഏറ്റവും നല്ലതായിരിക്കും വെളീ വെളിയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാട്ടും നമ്മൾ വീട്ടിൽ വളർത്തുന്ന സാധനം ആവുമ്പോൾ ഏറ്റവും പ്രയോജനം ആവും നല്ലതായിരിക്കും നല്ല സാധനം ആണല്ലോ

ഇത് കോഴിക്ക് കോഴിക്കാണെങ്കിലും താറാവിനാണെങ്കിലും പനി പനി ബാധിച്ചത് കാരണം ഇത് നഷ്ടമാണ് എല്ലാ പല സ്ഥലങ്ങളിൽ നിന്നും വന്നിരിക്കുന്നത് അതിൽ നിന്നെല്ലാം അതിൽ നിന്നെല്ലാം അതിനെ അത് എല്ലാവിധ ശുചീകരണങ്ങളും നടത്തി മരുന്നുകളെല്ലാം കൊടുത്തു കോഴികൾക്കും താറാവിനും എല്ലാം അതിൽ നിന്നെല്ലാം രക്ഷ നേടി പിന്നെ വേറെ മേടിക്കുകയും അതിൽ നിന്ന് അത് ആ ആ സമയത്തെ മിക്ക മിക്ക വീടുകളിൽ നിന്നും അത് അതിനെ നശിപ്പിച്ച് കളയും താറാവിന് താറാവിനെയും കോഴികൾക്കും എല്ലാം പനിയായിട്ട് നശിപ്പിച്ച് കളയും അതനുസരിച്ച് പിന്നെയും നമ്മൾ മേടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അതനുസരിച്ച് നമുക്ക് വീട്ടിൽ വളർത്തുന്നതനുസരിച്ച് നമുക്ക് നേട്ടമേ ഉളളൂ മുട്ടയ്ക്കാണെങ്കിലും നമുക്ക് വെളിയിൽ നിന്നും മേടിക്കാതെ നല്ല സ് നല്ല രീതിയിൽ സുരക്ഷിതമായിട്ടുള്ള മുട്ട കോഴിമുട്ടയാണെങ്കിലും താറാമുട്ടയാണെങ്കിലും അങ്ങനെ പ്രയോജനപ്പെടുമായിരുന്നു

എല്ലാ രീതിയിലും വെളിയിൽ നിന്ന് മേടിക്കാതെ നമുക്ക് വീട്ടിൽ നിന്ന് വീട്ടിൽ വളർത്തുന്നത് ആവുമ്പോഴത്തേക്കും നമുക്കത് ഏറ്റവും പ്രയോജനം ആകുമായിരുന്നു അങ്ങനെ നല്ല നേട്ടമാണ് അത് നമുക്ക് താറാവിനെ ആണെങ്കിലും കോഴികളെ ആണെങ്കിലും വളർത്തുന്നത് വീട്ടിൽ ഒരു പശുവിനെ വളർത്തുന്നതാണെങ്കിലും ആടിനെ ആണെങ്കിലും വളർത്തുന്ന അതനുസരിച്ച് പാൽ നല്ല പാൽ മേടിക്കാനും നല്ല പാൽ നമുക്ക് എടുക്കാനും വെളിയിൽ നിന്ന് മേടിക്കാതെ നല്ല പ്രയോജനം അതിനനുസരിച്ച് തന്നെ സംരക്ഷിക്കുകയും കൂടെ ചെയ്യണം അത് ഏറ്റവും നല്ല പ്രയോജനമുള്ള കാര്യമാണ്